സർ ഇത് കുറവാ ട്രാവൽസല്ലേ ഞാന് ഇന്നലെ നിങ്ങളുടെ ഒരു കാർ ബുക്ക് ചെയ്ത ഒരാളാണ് അപ്പം ഞങ്ങളിത് ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയുന്നു ഇത്വരെ നിങ്ങടെ കാറിൻ്റെ ഡ്രൈവറ് എത്തിയിട്ടില്ല ഞങ്ങൾ നാലഞ്ച് പേരുണ്ട് ഞങ്ങളത് കറക്റ്റ് സമയത്ത് ഇവിടെത്തിയിട്ട് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങള് കുറെ നേരായി നോക്കുന്നു ഇതുവരെ ആളെ കണ്ടില്ല ഇപ്പം നമ്മുടെ സമയവും ടൈം നമുക്ക് കൊറവാണ് നമ്മളവിടെത്തണ്ട ടൈമിനിയും എന്തായാലും കഴിഞ്ഞു അപ്പം ഒരു കാര്യം ചെയ്യാന്ന് തീരുമാനിച്ചു ഡ്രൈവറെത്തീട്ടില്ലല്ലിതു വരെ അപ്പം നമ്മളീ ട്രിപ്പങ്ങ് റദ്ധാക്കാന്ന് വെച്ചു എന്തായാലും നമ്മള ടൈം വെയിസ്റ്റായി പോയി അപ്പം നിങ്ങളോട് അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്തായാലും ഞങ്ങളിത് ക്യാൻസൽ ചെയ്യയാണ് ഓക്കേ സർ താങ്ക്യൂ താങ്ക്യൂ നമ്മുടെ ഒരു അപേക്ഷയാണ് ക്യാൻസൽ ചെയ്യുന്നു